എല്ലാ രീതിയിലുള്ള ചെടികളും വളർത്താൻ ഇഷ്ടപ്പെടാറുണ്ട് പൂക്കളും പഴങ്ങളും പച്ചക്കറികളും ഇത് മൂന്നും കൃഷി ചെയ്യാനും വളർത്താനും ഒക്കെ ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് പൂക്കൾ ആണെങ്കിൽ അത് വളരെ എളുപ്പമായിട്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനും ഒരു ചെറിയ രീതിയിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനും ഒക്കെ വളരെ ഒരു എളുപ്പം പറ്റുന്ന ഒരു കാര്യമാണ് പഴങ്ങളും വലിയ രീതിയിലുള്ള പരിപാലനം ഇല്ലെങ്കിലും

ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും പച്ചക്കറികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അത് നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഫലം ലഭിക്കുന്നുള്ളൂ ഇപ്പം പൂക്കളും പഴങ്ങളും പോലെ പഴങ്ങൾ ഏകദേശം ഇങ്ങനെ ചെറിയ രീതിയിലല്ല വലിയ മരങ്ങളായിട്ട് പിടിക്കുന്ന മരങ്ങൾ ആണെങ്കിൽ അത് നട്ടു കൊടുത്തിട്ട് അതിനെ അല്പം വളവും വെള്ളവും ഒന്ന് ഒഴിച്ചു കൊടുത്തു കൊണ്ടിരുന്നാൽ മതിയാവും പൂക്കളും ചില ചെടികൾക്ക് വളരെ അധികം ആയിട്ടുള്ള പരിപാലനം ഒന്നും ആവശ്യമില്ല എന്നാൽ ചെറിയ രീതിയിലുള്ള പരിപാലനം എല്ലാ പൂക്കളും ആ ആവശ്യമുണ്ട് അതിന് പച്ചക്കറിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ വേണമെന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ അതിൻ്റെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു തക്കാളിയുടെ ഒരു ചെടി ആണെങ്കിൽ അതിന് ചെറിയ രീതിയിലുള്ള വെയിൽ മാത്രമേ ആദ്യം ആവശ്യമുള്ളൂ പിന്നീട് കുറച്ചും കൂടി സൂര്യപ്രകാശവും അതിൻ്റെ തണ്ട് കാണ്ഡം ആണെങ്കിൽ തണ്ടുള്ള ഭാഗം കുറച്ച് ബലം കുറഞ്ഞ ഭാഗമാണ് അപ്പോൾ അതിന് ഒരു ഒരു പകുതി വലിപ്പം ആകുമ്പോഴേക്കും ചെടിയുടെ മുഴുവൻ വലുപ്പത്തിൻ്റെ ഒരു പകുതി വലിപ്പം ആകുമ്പോഴേക്കും അതിന് താങ്ങുകൾ ചെറിയ മരക്കമ്പുകളോ ഇരുമ്പ് കമ്പികളോ എന്തെങ്കിലും വെച്ച് താങ്ങുകൾ വെച്ച് സ അതിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾ ഒരുവിധം പച്ചക്കറികൾക്കൊക്കെ നമ്മളെ ഇതുപോലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് വള്ളി വള്ളികൾ ആയിട്ടുള്ള നിലത്ത് പടരുന്നതാണെങ്കിൽ അതിന് തക്കതായ സ സമയവും അത് ചെയ്യണം ആ ഭാഗം വൃത്തിയാക്കണം പന്തലുകളിൽ ചെയ്യുന്നതാണെങ്കിലും പന്തൽ കെട്ടിക്കൊടുക്കണം അതും നല്ല രീതിയിൽ അതിന് യഥാർത്ഥ രീതിയിൽ വളരാൻ പറ്റുന്ന രീതിയിലുള്ള പന്തലുകളാണ് നമ്മൾ കെട്ടി കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ പൂ ഉള്ള സമയത്ത് വളപ്രയോഗത്തിൽ കീടനാശിനികളിൽ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് മികച്ച രീതിയിലുള്ള ഒരു ഫലം ലഭിക്കുന്നുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ നട്ട് അതിന്റേതായ രീതിയിൽ അത് വളർന്നാൽ നമ്മളുദ്ദേശിച്ച ഫലം കിട്ടില്ല അതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും കായ്കൾ ഒന്നും യഥാർത്ഥ വലിപ്പം അതിന് ഉണ്ടാകുന്നില്ല പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ സന്തോഷവും ഇതിൽ പ്രധാനം പച്ചക്കറികൾ മാത്രമല്ല പൂക്കളും പഴങ്ങളും എല്ലാം കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ മനസ്സിൻ്റെ സന്തോഷം അത് നമുക്ക് കടകളിൽ ചെന്ന് ആ പച്ചക്കറി വാങ്ങി കഴിക്കുമ്പോൾ ഇല്ല അത് കിട്ടുന്നില്ല പ്രധാനമായും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗുണമേന്മ നമ്മളവിടെ വീട്ടിൽ ജൈവവളമോ എന്തെങ്കിലും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പോലെയല്ല പുറത്തുന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളുടെ രുചിയിലും ഗുണത്തിലും ഉള്ള വ്യത്യാസം അത് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് അതിന് ആ അതിന് നല്ല രീതിയിലുള്ള രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ തളിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അത് പല രീതിയിലുള്ള അസുഖങ്ങൾക്കും പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിലും അത് പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് വഴി തെളിയിക്കുന്നുണ്ടെന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തു കഴിക്കുന്ന ആ ഒരു പച്ചക്കറിയുടെ ഗുണം ഏത് കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾക്കും കിട്ടില്ല അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ആൾക്കാർ ഇതിനെ ഇഷ്ടപ്പെടാനും സ്ഥലമുള്ളടത്ത് കൃഷി ചെയ്ത് കഴിക്കാനും ആഗ്രഹിക്കുന്നത് പൂക്കളും ഇതുപോലെ തന്നെയാണ് പക്ഷേ അതിന് ഇങ്ങനെ ഒരു രാസവളങ്ങളുടെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവുന്നില്ല അതൊരു ഭംഗി കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് രീതിയിലുള്ള ഇതും കൃഷിയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്